ഇന്നത്തെ കാലത്ത് സാങ്കേതികവിദ്യയും ടെക്നോളജിയും മാറുന്നത്കൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപകാരമായിട്ടുണ്ട് കാരണം ടെക്നോളജിൻ്റെ വളർച്ചയും ഇൻ്റർനെറ്റിന്റെ വളർച്ചയും ഇന്റർനെറ്റ് ആണെങ്കിലിപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പോലെയല്ല ഫൈവ്ജി ഒക്കെയായി റ്റുജിയും ഫോ ത്രീജി ഫോർജി ഒക്കെ മാറി ഫിഫ്ത് ജനറേഷനിലേക്ക് വന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഡായിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടാണ് തോന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മലയാള ഭാഷാന്ന് പറയുമ്പോൾ മലയാളഭാഷയില് പണ്ട് നമുക്ക് ഇംഗ്ലീഷ് മാത്ര ഉണ്ടായിരുന്നത് നമുക്ക് ഫോണിലാണെങ്കിലും സ്മാർട്ട് ഫോണിലാണെങ്കിലും യൂസ് ചെയ്യാൻ ഇംഗ്ലീഷ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും വളരെ വ്യത്യാസായിട്ട് നമുക്കിപ്പോൾ മലയാളം യൂസ് ചെയ്യാൻ ഒക്കെ പറ്റുന്നുണ്ട് ഈ മൊബൈൽ ഫോൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് നമ്മുടെ വേൾഡില് ലാംഗ്വേജ് ഇംഗ്ലീഷായതുകൊണ്ട് തന്നെ എല്ലാ മൊബൈൽ ഫോണിലും ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സാങ്കേതികവിദ്യയുടെ വളർച്ച പെട്ടെന്ന് വളർന്നുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫോണില് ഇൻ്റർനെറ്റിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാം നമുക്ക് നമ്മുടേതായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലുപ്പോ സെർച്ച് ചെയ്യാനാണെങ്കിലും അതേപോലെ എന്തെങ്കിലും ഗൂഗ്ൾളോ അല്ലെങ്കിൽ വിക്കിപീഡിയ പോലുള്ള സെർച്ച് എൻജിൻസില് നമുക്ക് ഇംഗ്ലീഷിലായിരുന്നു മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് മലയാളത്തിലും സെർച്ച് ചെയ്യാൻ പറ്റും അതേപോലെ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടീട്ട് പണ്ട് ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കത് മലയാളം ഇപ്പോൾ ആമസോണിലൊക്കെ നമ്മള് കേറിക്കഴിഞ്ഞ് പറഞ്ഞാൽ അമ്മിക്കല്ല്ന്ന് അടിച്ച് പറഞ്ഞ ആ സാധനം നമുക്ക് കിട്ടും എന്നിട്ടത് അമ്മിക്കല്ല് ഇംഗ്ലീഷിൽ അടിക്കുക പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമായിരിക്കും വരിക അപ്പോൾ അമ്മിക്കല്ല് അല്ലെങ്കിൽ ആട്ടുകല്ല്ന്നൊക്കെ അടിച്ചു പറഞ്ഞാൽ ആ സാധനം കറക്റ്റായി വരും അത് നമ്മടെ മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വന്നൊരു മാറ്റമാണത് അത് ഇന്റർനെറ്റിന്റെ ഈ സ വളർച്ചയും സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടും മാത്രം ഉണ്ടായ ഒരു മാറ്റമാണ് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയണത്